ഞാൻ വിശ്രമിക്കാനിരിക്കുന്ന സമയത്ത് ഒന്നും അതിന് കുറിച്ച് നോക്കാറില്ല പക്ഷേ അതെ സമയം ധ്യാനിക്കാനിരിക്കുന്ന സമയത്ത് ഈ ധ്യാനം കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങി നക്ഷത്രങ്ങളെ നോക്കിയിരിക്കാറുണ്ട് ഓരോ നക്ഷത്രങ്ങളെ ഞാൻ ഓരോന്നോരോന്നായിട്ട് എണ്ണി എണ്ണി നോക്കിയിട്ടുണ്ട് പക്ഷേ എണ്ണിയാൽ തീരാത്തതാണ് നക്ഷത്രങ്ങൾ പലതിനും പല രൂപങ്ങളുണ്ട് ചിലപ്പം ചിലതിന് വാൽ പോലെയിരിക്കുന്ന നക്ഷത്രമുണ്ട് ചിലത് ചിരവേടെ പല്ലുപോലിരിക്കുന്ന നക്ഷത്രങ്ങളുണ്ട് അങ്ങനെ പല പല രൂപത്തിലും പല പല ആകൃതിയിലുമുള്ളതാണ് ചിലത് ബൾബ് കണക്കിരിക്കുന്നതുണ്ട് ചിലപ്പോൾ ചെറുത് പോ ചിലത് വളരെ ചെറുതായിരിക്കും ചിലപ്പോൾ ചിലത് വലിയ ബൾബ് കണക്കുള്ള ഒരു ആകൃതിയിലുള്ളതു കാണും അപ്പോൾ പലതും പല രീതിയിലുള്ളതാണ് നമ്മൾ പണ്ട് ഉള്ള പൂർവീകർ പറഞ്ഞിട്ടുണ്ട് മരിച്ചു പോയ അവരാണ് ഓരോരോ നക്ഷത്രങ്ങളായിട്ടു വന്ന് അപ്പോൾ അവർ ഓരോ നക്ഷത്രത്തിനെ നോക്കി നമ്മളെ അവരെ കുറിച്ച് അവരോടു നമ്മൾ സംസാരിച്ചോണ്ടിരിക്കെ ഓരോ നക്ഷത്രത്തിനെ ഇത് എനിക്കുള്ള എൻ്റെ അല്ലെങ്കിൽ അമ്മയായിരിക്കും അല്ലെങ്കിൽ ഇതെൻ്റെ അച്ഛനായിരിക്കും മരിച്ചുപോയ ഇല്ലെങ്കിൽ എൻ്റെ ബന്ധത്തിലുള്ള ആരെങ്കിലുമായിരിക്കും അങ്ങനെ ഓരോന്നിനെ ഓരോന്നും നോക്കി ഞാൻ ഓരോരുത്തരെ ഓരോ നക്ഷത്രത്തിനെ ഓരോന്നും പറഞ്ഞു സംസാരിച്ചുകൊണ്ടിരുന്ന് അതിൽ ഞാൻ സമാധാനം കണ്ടെത്തുകയും സന്തോഷം കണ്ടെത്തുകയും അതിലെനിക്ക് ആത്മ സംതൃപ്തി ഉണ്ടാവുകയും എല്ലാം ചെയ്യാറുണ്ട് ഈ നക്ഷത്രങ്ങളെ നോക്കി ഞാൻ ഒരുപാടു സമയങ്ങളിൽ ചിലപ്പോൾ ഞാൻ ഒരു ഏഴ് ഏഴര മണിക്കൊക്കെ അത് നോക്കിയിരുന്നാൽ ചിലപ്പോൾ ഞാൻ പതിനൊന്നു മണി വരെയും ഞാൻ അറിയാതെ ഞാൻ അത് തന്നെ നോക്കിയിരിക്കും നമ്മൾ പല സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞത് അത് അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ അതിൻ്റെ ഒരിത് നമുക്ക് മനസ്സിന് നല്ലൊരു സമാധാനം സന്തോഷമൊക്കെ നമുക്ക് അറിയാതെ തന്നെ അങ്ങുണ്ടാവുന്ന ഒരവസ്ഥ നമുക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ടു നക്ഷത്രങ്ങൾ ഞാൻ നിരീക്ഷിച്ചു അതിനുള്ള അനുഭവങ്ങളും ഞാൻ അതീന്നു മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്